ഒരു എഴുത്തുകാരനെ സംബന്ധിച്ച് നമുക്ക് എപ്പോഴും അതിൻ്റെ എല്ലാ വശങ്ങളും നമ്മളറിഞ്ഞിരിക്കണം ഇപ്പോഴത്തെ കുട്ടികളെക്കുറിച്ച് ഇപ്പോൾ സാധാരണ എഴുത്തുകാർ എഴുതു എഴുതുന്നതൊക്കെ നമ്മൾ വായിച്ചു കഴിഞ്ഞ അവർ അവരുടേതായ രീതിയിൽ എന്തൊക്കെയോ വലിച്ച് എഴുതുന്നു എന്നല്ലാതെ അതിൻ്റെ അകത്തൊരു വ്യാകരണമോ ഘടനയോ ആലങ്കാരികതയോ ഭംഗിയോ ഒന്നും നമുക്ക് പലപ്പോഴും തോന്നാറില്ല അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്യുന്നു ഒരു ഒരു പോയം എഴുതുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ഘടനയും ഗ്രാമർ സെക്ഷനും പിന്നെ അതിൻ്റെ ആ എ എല്ലാ അലങ്കാര പദങ്ങളും ഒക്കെ നോക്കി അതു അതെല്ലാം കൂടി ഒത്തു വരുമ്പോഴേ ഉള്ളു ഒരു പോയം ആ പോയതിൻറ്റേതായ ആ ഒരു പൂർണ്ണതയിൽ എത്തത്തുള്ളൂ പിന്നെ എന്ത് എഴുതിയാലും അതിനൊരു ഭംഗി വരണമെങ്കിൽ നമുക്ക് കൂടുതൽ വായന ആവശ്യമാണ് നമുക്ക് വാക്കുകൾ വൊക്കാബുലറി അത്യാവശ്യമാണ് അല്ലാതെ ചുമ്മാതെ നമ്മൾ എന്തോ മനസ്സിൽ കണ്ട് എന്തോ എഴുതിവെക്കുന്നു എന്ന രീതി വന്നുകഴിഞ്ഞാൽ ആ വായനക്കൊരു പൂർണ്ണത ആ ഒരു എഴുത്തിനൊരു പൂർണ്ണത എപ്പോഴും കൈവരാറില്ല അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു കുറച്ച് വൊക്കാബുലറി നമ്മൾ പഠിച്ചിരിക്കണം പുതിയ പുതിയ വാക്കുകൾ കണ്ടുകഴിയുമ്പോൾ നമ്മളതിൻ്റെ അർത്ഥം അതിൻ്റെ ആ ഒരു ഏതൊക്കെ ആ വാക്കുകൾ ഏതൊക്കെ സ്ഥലത്തു നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും അത് ഇംഗ്ലീഷ് ആണെങ്കിലും മലയാളം ആണെങ്കിലും അതിൻ്റെ അർത്ഥങ്ങൾ നമ്മൾ മനസ്സിലാക്കണം അതിന് ആ എങ്കിൽ മാത്രമേ നമുക്കൊരു എഴുത്തിലൊരു പൂർണ്ണത വരത്തുള്ളു എപ്പോൾ എഴുതിയാലും നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരാൻ പുതിയ വാക്കുകളൊ പുതിയാ വ്യാകരണങ്ങളോ അതിൻ്റകത്തു കൊണ്ടുവരാൻ ഒക്കെ നമുക്ക് ശ്രമിക്കണം ഒരു എഴുത്തിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അതിൻ്റെ ഭംഗി വരണമെങ്കിൽ ഈ ആലങ്കാരിക പദങ്ങൾ പുതിയ പുതിയ പദങ്ങൾ നമ്മൾ ചേർത്തെഴുതണം പിന്നെ അതിൻറ്റകത്ത്

പിന്നെ നമ്മുടെ സ്റ്റാൻസ വൈസ് പോയം എഴുതുമ്പോൾ പോയത്തിൻ്റെ റൈം സ്കീമും റൈമിങ് വേർഡ്സുമൊക്കെ വെച്ച് എഴുതാറുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ എഴുതി കഴിയുമ്പോഴേക്കും അതിന് ആ പോയതിൻറ്റേതായൊരു ഭംഗി എപ്പോഴും കാണാറുണ്ട് ഇതൊക്കെ ഈ അലങ്കാരിക പദങ്ങളും വ്യാകരണവുമെല്ലാം ഘടനയെ എല്ലാംകൂടി ഒന്നിച്ചു വന്നാൽ മാത്രമേ ഒരു പോയം അതിൻ്റെ പൂർണ്ണതയിൽ എത്തത്തുള്ളൂ അപ്പോൾ എഴുത്തിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും വ്യാകരണവും ഘടനയും ആലങ്കാരിക പദങ്ങളും എല്ലാം അത്യാവശ്യമായ ഒരു ഘടന തന്നെയാണ്